ആ ഞാൻ ഇത് ഡാൻസ് അക്കാദമിയാണോ

ആ ഇപ്പം എനിക്ക് നിലവിൽ പഠിച്ചുകൊണ്ടിരുന്നയാളാണ് ഇവിടെയല്ല വേറെയൊരു സ്ഥലത്താണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അപ്പം കഥകളി പഠിക്കാനായിട്ടാണിപ്പോൾ ആഗ്രഹിക്കുന്നത് അതിന് അതിൻ്റെ ഓ ചാർജ് എന്താ എത്ര മാസത്തെ കോഴ്സ്

ഓ ഒരു മാസത്തിന് എത്രയാകുമായിരിക്കും പേയ്മെൻറ്റ് പതിനയ്യായിരം ആവും മ്മ് ആണോ അപ്പം ഈ മൂന്ന് മാസത്തിന് പേയ്മെൻറ്റ് എത്രായാകുമായിരിക്കുമെന്നേ അത്രയാവുമോ ഇച്ചിരി കൂടുതലാണോ അതൊന്ന് കുറച്ച് തരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ മേഡം അത്യാവശ്യം നമുക്ക് കുറേയൊക്കെ കുറേയൊക്കെ കണ്ട് കേട്ട് പഠിച്ചിട്ടൊക്കെയുണ്ട് പിന്നെയൊന്ന് തട്ടിപ്പൊക്കി എടുക്കാനാണ്

അപ്പം ഇതിൻ്റെ സമയം എന്ത് എന്ന് പറയാമോ ആഴ്ചയിൽ എത്ര ക്ലാസ് ഉണ്ട് ആ മ്മ് ടൈമ് എത്ര മണിക്കൂർ ഒരു ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാ കാണും ക്ലാസ് രണ്ട് മണിക്കൂർ അല്ലേ ഓ

കഥകളി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടോ മേഡത്തിന് ആ പഠിക്കാൻ വരുന്നവരുണ്ടല്ലേ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവർ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ ടൈമ് ആ അവർ കഥകളി പഠി ആ ഈ ഈ മൂന്ന് മൂന്ന് വർഷം പഠിക്കുന്നതിന് എത്ര രൂപായാകുമായിരിക്കും ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത ദിവസംതന്നെ ഒന്ന് ഞാനൊന്ന് വന്ന് നേരിട്ട് കണ്ടുമുട്ടിക്കോളാം അത് കഴിഞ്ഞ് തീരുമാനം എടുക്കാം എന്ന് ഈ നമ്പറ് എടുക്കുന്ന എടുക്കുന്ന നമ്പറാണ് ഈ നമ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്ന നമ്പറ് അത് താങ്ക് യൂ മേഡം